ഹലോ ഇത് മലബാർ ഹോട്ടൽ അല്ലെ ഞാൻ അവിടെ നിന്ന് പൊറോട്ടയും ബീഫ് കറിയും ഓർഡർ ചെയ്ത് ഇരുന്ന് അപ്പം ഇവിടെ സാധനമൊന്നും ഇവിടെ എത്തിയിട്ട് ബീഫ് കറി തീരെ ടേസ്റ്റില്ലാതെ പച്ചവെള്ളം ഒഴിച്ച മാതിരി കയ്ക്കുന്ന പോലെ ഒര് തീരെ ടേസ്റ്റില്ല അതായ് അതിന് പകരം ഞാൻ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു വാങ്ങി ഏൽപ്പിച്ചതായിരുന്നു ഓർഡർ ചെയ്യിച്ചതിന് അത് പകരം മറ്റ് വല്ല ഫുഡ്ഡും

കൊടുത്ത് അയക്കണം പാർസലായിട്ട് വളരെ മോശം ഭക്ഷണമായിരുന്നു